ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കുന്നതും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കുന്നതും വളരെ വ്യത്യാസമാണ് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു ഹാപ്പിനെസ്സോ ഒരു വൈബോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ആ സമയ ഞാൻ എൻ്റെ സ്കൂളിലോ കോളേജിലൊക്കെ ആണെങ്കിൽ അത് നല്ലൊരു രസമാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്തമാനം ഒക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഫുഡ് ഒക്കെ കഴിക്കുമ്പോൾ അത് വല്ലാത്തൊരു ഫീൽ ആണ് ഞങ്ങൾ ഒരുമിച്ച് വട്ടത്തിലിരിക്കും എന്നിട്ട് എല്ലാവരും കൊണ്ടുവന്ന ഫുഡ് ഷെയർ ചെയ്യും അത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് ഓരോത്തരും പല പല രുചികളിലുള്ള ഫുഡ്ഡുകളായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത് അത് എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ് ആണ് കോളേജിൽ നിന്ന് ട്രിപ്പ് പോയപ്പോഴാവട്ടെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വട്ടത്തിൽ ഇരുന്ന് കഴിച്ചു അതൊക്കെ വളരെ ഒരു രസമുള്ള പരിപാടിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി കല്യാണം നിശ്ചയം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കഴിക്കും ഒരുമിച്ച്ക ഇരുന്ന് കഴിക്കുക മാത്രമല്ല ഒരുമിച്ച് ചെയ്യും ഞങ്ങൾ തലേന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണങ്ങൾക്ക് ഉള്ള പരിപാടികളൊക്കെ നോക്കും പച്ചക്കറികളൊക്കെ അരിയും എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കും പിറ്റേന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് കഴിക്കും ഇതൊക്കെ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് അത് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു സ്ഥലത്തുനിന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പം കിട്ടില്ല അതൊക്കെ പറഞ്ഞാൽ അത് വളരെ ഒരു വൈബ് ഉള്ളൊരു സംഗതികളാണ് ഒറ്റയ്ക്കിരുന്നൊരു സ്ഥലത്തുനിന്ന് കഴിക്കുമ്പം ചിലപ്പോൾ നമ്മൾ മൊബൈൽ നോക്കും ചിലപ്പം ടി വി ഓൺ ആക്കും പക്ഷേ നമ്മൾ കുറച്ച് ആൾക്കാരോട് മിണ്ടിയും പറഞ്ഞും കഴിക്കുന്ന ഒരു രസം അത് കിട്ടില്ല